സാധാരണ നമ്മൾ വായ്പകൾ എടുക്കാറ് എടുക്കാറുണ്ട് നമുക്ക് ബാങ്കുകളിൽ നിന്ന് നമ്മൾ വായ്പ എടുക്കാറുണ്ട് പ്രൈവറ്റ് ബാങ്കുകളിൽ നിന്നും ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്നും എടുക്കാറുണ്ട് പിന്നെ അത്യാവശ്യമായിട്ട് പണം ആവശ്യമുള്ള സമയത്ത് നമ്മൾ പ്രൈവറ്റ് നമ്മൾ പുറത്തു നിന്ന് ആളുകളിൽ നിന്നിട്ട് നമ്മൾ എടുക്കാറുണ്ട് അങ്ങനെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ വായ്പ എടുക്കുന്നതിന് ഒരുപാട് നല്ല വശങ്ങളുണ്ട് കാരണം പെട്ടെന്ന് പൈസ വരുന്ന സമയത്ത് നമുക്ക് ആ വായ്പ ലഭിക്കുന്നതിലൂടെ നമുക്ക് പൈസ ലഭിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ ചെയ്യാനാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു അങ്ങനെ വായ്പയ്ക്ക് കുറച്ച് ഗുണങ്ങളുണ്ട് നമ്മൾ വായ്പ നമ്മൾ അഥവാ തിരിച്ച് നേരെ അടച്ചില്ലെങ്കിൽ അഥവ നമ്മൾ ബാങ്കുകളിൽ നിന്നാണ് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല എന്ന് എങ്കിൽ അവിടെ അടവ് തെറ്റുകയാണെങ്കിൽ അവിടെ നമുക്ക് പലിശ കൂടും പലിശയ്ക്ക് പലിശ എന്ന് പറഞ്ഞ പോലെ കൂടുതൽ നമുക്ക് പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകും അപ്പോൾ ബാങ്കുകളിൽ നമുക്ക് സിബിൽ സ്കോർ എന്നു പറയണ ഒരു സ്കോർ ഉണ്ട് ഒരു വായ്പ ഒന്നും എടുക്കാത്ത വ്യക്തിക്ക് സിബിൽ സ്കോർ എന്ന് പറയണത് മുഴുവൻ സിബിൽ സ്കോർ ഉണ്ടാകും എന്നാൽ പിന്നീട് വായ്പ എടുത്തു കൊണ്ടിരിക്കുന്ന ആൾക്ക് നന്നായി അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓരോ മാസത്തിലും അടവ് കറക്റ്റായി അടക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് സിബിൽ സ്കോർ കുറയുകയും പിന്നെ ആ ഒരു വ്യക്തിക്ക് മറ്റ് ബാങ്കുകളിൽ നിന്ന് പോലും വായ്പ ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ടാവാറുണ്ട് പിന്നെ നമ്മൾ പുറത്തു നിന്ന് ആളുകൾ വഴി സമീപിച്ച് നമ്മൾ വായ്പയെടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പലിശ കൂടുതലായിരിക്കും ചിലപ്പോൾ പലിശ കൂടുതലായിരിക്കും അത് ഒന്നോ രണ്ടോ മാസം നമ്മൾ അടയ്ക്കാൻ തെറ്റുകയാണെങ്കിൽ പിന്നീട് അവർ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി മറ്റു കാര്യങ്ങളും മറ്റും പ്രൈവറ്റുകൾ എടുക്കുന്നത് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി പ്രയാസപ്പെട്ട കാര്യം കുറച്ചും കൂടി മറ്റു പ്രശ്നങ്ങളിലോട്ട് എത്തിക്കണ കാര്യമാണ് എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കായി വായ്പകൾ എടുക്കാറുണ്ട് ഗവൺമെൻറ് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ പലരേയും ആശ്രയിച്ചാണ് വായ്പ എടുക്കാറുള്ളത്